ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ ഇവിടെ ഫ്രഞ്ച് മുക്കിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ ഗ്യാസ് ഏജൻ അടുക്കള എല്ലാം ഒന്ന് നവീകരിച്ചു പുതിയതാക്കി എല്ലാം പണിത് അപ്പോൾ ഒരു കണക്ഷൻ എടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് കുറ്റി പുതിയത് കൊണ്ടുത്തന്നാൽ മതി കണക്ഷൻ ഓൾറെഡി ഉള്ളതാണ് എൻ്റെ നമ്പറ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചാണ് ഇത് കൺസ്യൂമർ ഐ ഡി നമ്പറ് സ്ഥലം അറിയാമല്ലോ ഫ്രഞ്ച് മുക്കിലാണ് കൊണ്ടുത്തരാനായിട്ട് ഞാൻ താൽപ്പര്യപ്പെടുന്നു സൗകര്യം പോലെ എത്രയും പെട്ടെന്ന് കൊണ്ട് തരിക ഓക്കെ താങ്ക്യൂ